ആ ഹലോ മാഡം പറഞ്ഞോളൂ

ഓക്കെ മാഡം മാഡത്തിന് ഇഷ്ടപ്പെട്ടോ ഓക്കെ താങ്ക്യൂ മാഡം താങ്ക്യൂ ഓക്കെ ഓക്കെ മാഡം ത് ചെയ് നമ്മള് സ്പെഷ്യലി തയ്യാറാക്കുന്ന ഒരു കൂട്ട് ഉപയോഗിച്ച് ചെയ് റെഡിയാക്കുന്ന ഒരു ബിരിയാണിയാണ് അത് ആ ഇപ്പോൾ നമ്മൾ പല ഹോട്ടലുകളും അവൈലബിളാണ് പക്ഷേ നമ്മുടെ ഈ മലബാർ ഹോട്ടലുകളിൽ തേടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട് അത് ലോക്കലി നാട്ടുകാർ ആണങ്കിലും പുറത്തു നിന്നുള്ളവരാണെങ്കിലും ഇപ്പോ കുറേ വ്ളോഗേർസൊക്കെ പലതും പലരും വന്നിട്ട് നമ്മുടെ അവിടുന്ന് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടറിഞ്ഞിട്ടും കുറേ പേർ ഇവിടെ വരുന്നുണ്ട് നമ്മളോട് നല്ല അഭിപ്രായം പറയാറുണ്ട് തീർച്ചയായും മാഡം വിളിച്ചത്തിൽ വളരെ സന്തോഷം ഉണ്ട് കേട്ടോ റെസിപ്പി പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് മാഡം കാരണം ഇത് എല്ലായിടത്തും കല്ലുമക്ക ബിരിയാണി കിട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആവുന്നതിനു നമ്മൾ സ്പെഷ്യൽ കൂട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ അങ്ങനെ പറഞ്ഞ് പുറത്ത് പറഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവരും ഉപയോഗിക്കില്ലേ നമ്മുടെ സ്പെഷ്യാലിറ്റി അത് പോവില്ലേ

ഓക്കെ മാഡം ഓക്കെ തീർച്ചയായും മാഡം ആ മാഡത്തിന് ഇനി ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാഡത്തിന് ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ഹോട്ടലിൽ കയറണം ഇതുമാത്രം അല്ല കല്ലുമക്കായ കായ ബിരിയാണി മാത്രമല്ല നമുക്ക് ഇവിടെ ചിക്കൻ ബിരിയാണി ആണെങ്കിലും എല്ലാത്തിലും നമുക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് മറ്റ് വിഭവങ്ങളുണ്ട് പിന്നെ ജ്യൂസസ് കുറേ ഡെസേർട്ട് അങ്ങനെ എല്ലാം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാഡം വന്നപ്പോൾ തന്നെ മാഡത്തിന് അത് മനസ്സിലായിട്ടുണ്ടാകും ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അതേ അതേ സ്പെഷ്യൽ കോക്ടെയ്ൽ തന്നെയാണ് നമ്മളത് ഒന്ന് അതിൻ്റെ കൂടുതലത് ചിലവാകാൻ കാരണം നമ്മൾ വലിയ റേറ്റ് നമ്മൾ വാങ്ങിക്കുന്നില്ല

ആ ഓക്കെ താങ്ക്യൂ മാഡം താങ്ക്യൂ എന്തായാലും വിളിച്ചതിന് ഒരുപാട് നന്ദി ഞാൻ എൻ്റെ മറ്റ് സ്റ്റാഫായിട്ടും വിവരങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ ഓക്കെ തീർച്ചയായും വരണം മാഡം തീർച്ചയായും വരണം ഓക്കെ ശരി ശരി